ഞങ്ങളുടെ പ്രദേശത്ത് ആരംഭിക്കാവുന്ന പ്രധാനപ്പെട്ടൊരു സംരംഭംന്ന് പറയുന്ന ഒന്ന് ഒരു വായനശാല രണ്ടാമതൊരു തൊഴിൽ പരിശീലന കേന്ദ്രം ഇത് രണ്ടിൻ്റെയും ആവശ്യമെന്ന് പറയുന്നത് ഇന്നത്തെ തലമുറകൾ വളരെ വായനയിൽ വളരെ പുറകിലാണ് പുറകിലാണ് അതിന് കാരണം ഇന്നത്തെ മാധ്യമങ്ങളും അതുപോലുള്ള മൊബൈൽ സംവിധാനങ്ങളും അതുപോലുള്ള സംവിധാനങ്ങൾ വന്നതോട് കൂടി യുവതലമുറകൾ വായനയിലൊരുപാട് പുറകോട്ട് പോയിട്ടുണ്ട് വായനയിലവർ പുറകോട്ട് പോയതിൻ്റെ ഫലമായിട്ട് വേണ്ടതായ വിവരങ്ങളോ അതുപോലുള്ളതായ അറിവോ പിള്ളേർക്ക് കുട്ടികൾക്ക് കിട്ടുന്നില്ല കുട്ടികൾക്ക് കിട്ടുന്നില്ല യുവാക്കൾക്ക് കിട്ടുന്നില്ല എല്ലാവരും സ്കൂള്ന്ന് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലാതെ ഒരു ജനറലായിട്ടുള്ള അല്ലെങ്കിൽ പുറത്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൂടെ അവർക്ക് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നും യാതൊരു ധാരണയുമില്ലാത്തൊരാവസ്ഥയിലാണ് പോകുന്നത് അപ്പം അങ്ങനെയുള്ള ആ യുവ തലമുറകളെ ഇന്ന് ഈ അറിവില്ലായ്മ്മ കൊണ്ടാണ് പലപ്പോഴും മദ്യത്തിൻ്റെ പുറകേയും മയക്ക് മരുന്നിൻ്റെ പുറകേയും അബദ്ധങ്ങളിലക്കെ ചെന്ന് ചാടുന്നത് അപ്പം അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ യുവതലമുറകളെയും അല്ലെങ്കിൽ സമൂഹത്തെ തന്നെ രക്ഷിച്ചെടുക്കാനായിട്ടൊരു വായനശാല അത്യാവശ്യമായിട്ടൊരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടാമത്തൊരു കാര്യംന്ന് വെച്ചാൽ നമ്മുടെ ഈ തൊഴിൽ പരിശീലന കേന്ദ്രം തൊഴിൽ പരിശീലന കേന്ദ്രം നമ്മളെ ഞങ്ങളെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് പേർക്കത് ഒരാശ്വാസമായേനെ ഇന്ന് പൊതുവെ നമുക്കറിയാം ആ ടെക്നോളജികളുടെ വളർച്ച കാരണം പല തൊഴിൽ സാധ്യതകളും അസ്തമിച്ച് കൊണ്ടിരിക്കുവാണ് കാരണം പലരുടെ തൊഴിലുകൾ നഷ്ടപ്പെട്ടു പലരും ചെയ്ത് വന്ന തൊഴിലൊക്കെ മാറി കാരണം അവരിന്ന് പണ്ട് കണ്ടത്തിൽ പണിയെടുത്തവർ അതുപോലെ കൃഷി ചെയ്തവർ അതുപോലെ ഇങ്ങനെയുള്ളതായ അപ്പം ഉദാഹരണം ടാപ്പിങ്ങ് പോലുള്ള തൊഴിലക്കെ നിന്നിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളതായ നിലയിൽ പണ്ട് പണ്ട് ചെയ്ത് വന്നതായ ജോലികളൊക്ക നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ജീവിച്ച് പോകാൻ പറ്റിയൊരു തൊഴിൽ പരിശീലന കേന്ദ്രം അതാണ് ഞാൻ വളരെ വളരെ ആഗ്രഹിക്കുന്നതും ഞങ്ങളെ ദേശത്ത് വേണമെന്ന് ഞാൻ മനസ്സ് കൊണ്ട് വളരെ ആഗ്രഹിക്കുന്നതും പിന്നെ ഇതിൻ്റെ പോരായ്മ്കളിതൊക്കെ തന്നെയാണ് അതുകൊണ്ടാണിത് വേണമെന്നാഗ്രഹിക്കുന്നത് ഇത് ഞാൻ തുടങ്ങുമെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ള ഈ രണ്ട് കാര്യമെന്ന് ഈ വായന സ് ശീലം ജനങ്ങളിൽ വളർത്തിയെടുക്കാനൊരു വായനശാലയും രണ്ടാമതായിട്ട് അടുത്ത ഇനി വരുന്ന തലമുറകൾക്ക് ജീവിച്ച് പോകാൻ ഉതകുന്നതായ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു തൊഴിൽ പരിശീലന കേന്ദ്രവും നമ്മുടെ നാട്ടിലുണ്ടാകും ഉണ്ടായാൽ ഒരുപാട് തലമുറകൾ ഒരുപാടാൾക്കാർ മദ്യത്തിൽ നിന്നും മയക്ക് മരുന്നിൽ നിന്നൊക്കെ പ്രാപിച്ച് ഈ ജോലി മേഖലകളിലൂടെ അവരുടെ ജീവിതം ആനന്ദകരമാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്